പോസിറ്റീവ് എക്സ്പീരിയൻസുണ്ടായത് കളർ പെൻസിലാണ് കളർ പെൻസില് നമുക്ക് എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുപോലെ കുട്ടികളുടെ കോക്നെറ്റീവ് ഡവലപ്മെൻറ്റിനും നമ്മൾ കളർ പെൻസില് യൂസ് ചെയ്യാം കളർ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ അത് കൃത്യമായിട്ട് കളറ് ചെയ്യാനുമൊക്കെ കുട്ടികളെ മീൻ നമ്മള് പ്രിപ്പെയറ് ചെയ്യാനായിട്ട് കളർപെൻസില് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് കളർ പെൻസില് നമുക്ക് കളറ് ഡിഫ്രൻറ്റ് കളറ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ആൻഡ് അത് നമ്മളെ എജ്യൂക്കേഷനും അതുപോലെ ഓഫീസ് സ്റ്റേ സ്റ്റേഷനറിയായിട്ട് ഉപയോഗിക്കാം